ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇവിടെ ഹോം സ്റ്റേ എന്നു പറയുമ്പോഴത്തേക്കു തിരുവനന്തപുരത്തൊരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് നമ്മുടെ കോവളം ശങ്കുമുഖം

ശംഖുമുഖം കോവളം പിന്നേ എന്താണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൊന്മുടി ട്രിവാണ്ട്രം ജില്ലയിൽ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മെയിൻ പറയുന്നത് അപ്പോൾ അവിടെ ഹോം സ്റ്റേ എന്നു പറയ്ന്നൈഞ്ഞ വീടുകളാണ് വീടുകളിൽ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സാണ് വരുന്നത് ഫോറീനേഴ്സ് അതായത് പ്രത്യേകിച്ച് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് കേരളത്തിലേക്ക് അതായത് ട്രിവാണ്ട്രം ജില്ലയിലേക്കു വരുന്നത് അപ്പോൾ ഏറ്റോങ്കൂ അപ്പോൾ ഏറ്റവും ഹോം സ്റ്റേകൾ കൂടുതൽ കൂടുതൽ ഓപ്പണാകുകയും ചെയ്യുന്നു അതാ ഹോം സ്റ്റേ ഒരുക്കുന്നതിന് അവർ നേരിടുന്ന വെല്ലുവിളികളെന്നു പറഞ്ഞാൽ പ്രത്യേകിച്ച് അവർ ഭയങ്കര റേറ്റാണ് മേടിക്കുന്നത് റേറ്റ് അവർ ഇപ്പം ഫുഡ്ഡും അക്കോമെടേഷനുമൊക്കെ ആർക്കും കൊടുക്കുന്നത് പക്ഷെ ഫോറിനേഴ്സിനെ സംബന്ധിച്ച് അവർക്കിഷ്ടമുള്ള ആഹാരം കൊടുക്കണം അവർക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരപ്പോഴെ തന്നെ കളഞ്ഞിട്ടു പോകും അപ്പപ്പിന്നവരുണ്ടാക്കിയ ഫുഡ്ഡുകൾ വേസ്റ്റാകും അവർ സ്പൈസി ഫുഡ്ഡൊന്നും കഴിക്കത്തില്ല അപ്പം അവർക്കതനുസരിച്ചിഷ്ടമുള്ള പിന്നെ പ്രധാനമായിട്ട് നേരിടുന്നത് ഭാഷയാണ് അവരുടെ ലാങ്വേജ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം തന്നെ മനസ്സിലാകണമെന്നു നിർബന്ധമില്ല അതൊരു മെയിൻ വെല്ലുവിളി തന്നെയാണ് ഇവരെന്താവശ്യപ്പെടുന്നതെന്നും മനസ്സിലാകുന്നില്ല പിന്നേ കേരളത്തിലെ പ്രത്യേകിച്ചു തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പൈസയുടെയും മറ്റുള്ള ദാരിദ്ര്യത്തിനനുസരിച്ചിട്ടാണിവർ ഹോം സ്റ്റെ സെറ്റ് അപ്പ് ഈ മൂന്നു മാസങ്ങളിലേറ്റവും കൂടുതൽ ഒരുക്കുന്നത് അപ്പം അതനുസരിച്ചവർക്കു പൈസ കിട്ടിയില്ലെങ്കിൽ അവർക്കതൊരു പ്രശ്നം തന്നെയാണ്

ഡ്രഗ്സും പിന്നെ അതായത് ഡ്രിങ്സുമൊക്കെ കുടിച്ചിട്ട് ഒത്തിരിത്തിരി പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് പിന്നതൊക്കെ നമ്മൾ മറ്റുള്ള വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടാവരുത് നമ്മൾ ഹോം സ്റ്റേ നേരിട്ട് ഉണ്ടാക്കി ചെയ്യുന്നത് അപ്പം അതു കൊണ്ട് അതെല്ലാം നമ്മൾ നോക്കിക്കണ്ടു വേണം ചെയ്യാൻ അതേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇഷ്ടമ്മാതിരി ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാർ നേരിട്ടിട്ടുണ്ട് അവരുടെ സാധനങ്ങൾ നശിപ്പിക്കും ഫോറീനേഴ്സ് ഡ്രഗ്സൊക്കെ കഴിച്ചിട്ട് ബോധമില്ലായിയുണ്ട് ഉണ്ട് പിന്നെ ഒത്തിരി എന്താണ് ആൾക്കാരെ വല്ലാത്ത ഫാഷകളുപയോഗിക്കുന്നുണ്ട് അപ്പം അത്തരം കേസുകളൊക്കെ ഇഷ്ടമ്മാതിരി വരുന്നുണ്ട് അപ്പം ഇതൊക്കെ എല്ലാം എല്ലാം മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഹോം സ്റ്റെ നടത്തിക്കൊണ്ടു പോകുന്നൊരു വലിയൊരു കഷ്ടപ്പാടൂ തന്നെയാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളു അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല പിന്നെ ഇഷ്ടമ്മാതിരി ഫോറീനേഴ്സ് നമ്മുടെ നാട്ടിലേക്കു വരുന്നുണ്ട് കേരളത്തിലേക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലേക്ക് ധാരാളം ടൂറിസ്റ്റ് പ്ലേയ്സുകളുണ്ടല്ലൊ പത്മനാഭപുരം പാലസ് അതായത് കോവിലം പാലസ് അതായത് കൊഴിക്കക്കൊ പാലസ് കിളിമാനൂർ പാലസ് അങ്ങനെയുള്ള ഒത്തിരിയൊത്തിരി അതായത് ഇപ്പം പത്മനാഭഷ സ് തരത്തിലെ പണ്ടുള്ള രാജാക്കന്മാർ കൊണ്ടു വന്ന സ്വർണ്ണങ്ങളും അതുമിതും ഒക്കെ കാണാനൊക്കെ ഒത്തിരി ഫോറീനേഴ്സ് വരുന്നുണ്ട് അവർക്കൊക്കെ താമസിക്കാനാണല്ലൊ ഈ ഹോം സ്റ്റെ ഒരുക്കുന്നത് അപ്പം ഇത്തരം പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം ഹോം സ്റ്റെ ഉണ്ടാക്കാൻ അല്ലെങ്കിലവർക്കതിനെല്ലാം തിരിച്ചവരതിനുള്ള മറുപടി നൽകേണ്ടി വരും ഇത്രയൊക്കെ ഉള്ളു